എന്റെ പഠന കാലത്ത് സ്കൂളിൽ ലൈബ്രറി ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാല് ഉണ്ടായിരുന്നു എന്നാലും അത്ര വിപുലമായ രീതിയിലല്ല വര്ഷങ്ങള്ക്ക് മുമ്പ് ആയത് കാരണം കുറേ പരിമിതികളുണ്ടായിരുന്നു ഞങ്ങള്ക്കൊക്കെ ബുക്സ് കിട്ടാനും എല്ലാത്തിനും പരിമിതികളുള്ള ഒരു കാലമായിരുന്നു എന്നാലും കിട്ടുന്ന ബുക്കുകള് മാക്സിമം ഞങ്ങൾ വായിച്ചിട്ടുണ്ട് വളരെ കുറവാണെങ്കിലും അത് മാക്സിമം കുറേ പ്രാവിശ്യം വായിക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കുട്ടിക്കാലത്ത് പിന്നെ വായിച്ചിരിക്കുന്നത് പുറത്ത് ഗ്രാമീണ വായനശാലകൾ ഉണ്ടാവും അവിടെ മെമ്പര്ഷിപ്പ് എടുക്കുക അവിടെ പോയി ഇരുന്ന് വായിക്കുക അല്ലെങ്കിൽ അവിടെ നിന്ന് ബുക്സ് വീട്ടിൽ കൊണ്ട് വന്ന് വായിക്കുക അങ്ങനെയൊക്കെയാണ് കുട്ടിക്കാലത്ത് ചെയ്തിട്ടുള്ളത് അല്ലാതെ അന്ന് എല്ലാ ബുക്സും പൈസ കൊടുത്ത് മേടിക്കുക ആ പതിവൊന്നുമില്ല മാത്രമല്ല ലൈബ്രറികളും ഇന്നത്തെ കാലത്തെ അത്ര ഒരു പ്രചാരണത്തിൽ ഇല്ലായിരുന്നു ലൈബ്രറി പിന്നെ അധികം ന്യൂസ് പേപ്പറുകൾ ഒക്കെയാണ് ലൈബ്രറിയിൽ വായിക്കാന് ചെന്നിരിക്കാറ് ആള്ക്കാരൊക്കെ അപ്പം നമ്മൾ ഉള്ള ബുക്സ് എടുത്ത് കൊണ്ടു വന്നിട്ട് മാക്സിമം അത് വായിക്കുക അങ്ങനെ വായനാ ശീലം വളര്ത്തിക്കൊണ്ടു വന്ന ഒരാൾ ആണ് പിന്നെ വായിച്ച ബുക്ക് എന്ന് പറയാന് പഞ്ചതന്ത്ര കഥകൾ ബീര്ബല് കഥകൾ ഹോജാ കഥകൾ പിന്നെ കുട്ടികളുടെ രാമായണം ആയിരത്തൊന്ന് രാവുകൾ തെന്നാലിരാമന് കഥകൾ അങ്ങനെ കുറേ കൊച്ച് കൊച്ച് കഥകളാണ് കൂടുതലും അക്കാലത്ത് വായിച്ചിരിക്കുന്നത് മാത്രമല്ല ഒരു ഗ്രാമത്തിലായത് കൊണ്ട് വലിയ ക്ലാസ്സിക് ബുക്കുകളുടെ ശേഖരങ്ങളൊന്നും ആ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വായന അതിന് ഒരു പരിമിതിയുണ്ടായിരുന്നു ആ കാലത്ത്